ആ മേഡം എന്താണ് വേണ്ടത് ആ ഏത് ഫോണാ വേണ്ടെ ഇപ്പം സാധാരണ ഫോണൊണ്ട് ലേറ്റസ്റ്റ് മോഡൽ ഫോണും ഉണ്ട് ഏത് ഫോണാണ് വേണ്ടത് നിങ്ങൾക്ക് ആ ഇപ്പോൾ ഒരു പ്പാ പ്പാ ഇപ്പം പല റേഞ്ചിലുള്ള ഫോണൊണ്ട് ഏത് റേഞ്ചിലുള്ളതാണ് ഒരു പതിനഞ്ചായിരം രൂപയുടെ ഫോൺ ആണെങ്കിൽ ദേ ഇത് നോക്കൂ ഒപ്പോ ഉണ്ട് റെഡ്മി വിവോ മോട്ടറോള ആ റെഡ്മി നോട്ട് എൻ ഡി ഇവയൊക്കെ വളരെ നല്ല ഫോണാണ് മാം ഇനി സ സാധാരണ ഫോൺ മതിയോ അതോ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ഫോണാണോ ഉദ്ദേശിക്കുന്നത്

ആ മേഡ ഓ ഓ ഓ ആ ആ ഓ ഓ ഓ ഓ ദേ ഈ ഫോണൊക്കെ നോക്കിക്കോളൂ ഇത് ഒപ്പോ റെഡ്മി നോട്ട് എൻ ഡി ദേ ഈ ഫോണാണെങ്കിൽ ഇത് റെഡ്മി നോട്ട് എൻ ഡിയാണേ ഇതിനകത്ത് റാം സിക്സ് ജീ ബിയൊണ്ട് ആ റോം നൂറ്റിഇരുപത്തെട്ട് ജീ ബി റോമാണ് ഡ്യൂവൽ സിമ്മാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇപ്പം മേഡത്തിന് മോനെ കാ വീഡിയോ കോള് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലേ ഇത് മെയ്നായിട്ട് ഉദ്ദേശിക്കുന്നത് ആ അപ്പം ഈ ഫോൺ മേ മേഡത്തിന് വളരെ നല്ലതായിരിക്കും ഇത് ഇതിന് പതിനേഴായിരം രൂപയോളം ആകും ഇതിന് ഇത് എടുക്കട്ടെ എങ്കിൽ ആ ശരി എങ്കിൽ ഇത് എടുക്കാം